ഒക്കെ ഒക്കെ നമ്മൾക്ക് പിന്നെ ഓൺലൈനിൽ ആയിട്ട് പിന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻ്റ് ആണ് മൂൾട്ടാണിമീട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദുപ്പട്ട വരുന്നത് അതിന് ചാർജ്ജ് കോട്ടറ്റിൻ്റെ ദുപ്പട്ടയാണ് അതിന് ചാർജ്ജ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് പീസിന് റേറ്റ് വരുന്നത് നമ്മൾക്ക് അതിൻ്റെ കുറെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഡെലിവറി ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ പിന്നെ എത്ര നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ കേരത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അത് പിന്നെ അയക്കുന്നുണ്ട് കൊറിയർ വഴി അയക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ അടുത്ത് എങ്ങാനും ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യും പിന്നെ ഇനി ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കോസ്റ്റ് വരുന്നുണ്ട് അതിന് ഇതൊരു എഴുന്നൂറ്റി സംതിങ്ങ് രൂപ എഴുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ്ങ് വരുന്നത് അതിൻ്റെ പല മോഡലും പല ഡിസൈനിനും കോട്ടൺ നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്

ഓക്കെ നമ്മുടെ അടുത്ത് കുറെ കളക്ഷൻസ് ഉണ്ട് കളറുകൾ ഉണ്ട് വെറൈറ്റി വെറൈറ്റി പിന്നെ കോട്ടണിൻ്റെ തന്നെ അപ്പം നിങ്ങൾ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾ നോക്കിനോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇട്ടാൽമതി

ഏ ഞാൻ നിങ്ങൾക്ക് പിന്നെ ദുപ്പട്ടേൻ്റെ ഫോട്ടോസൊക്കെ വാട്ട്സപ്പിൽ സെൻ്റ് ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദുപ്പട്ട എത്ര പീസ് വേണം ആ ദുപ്പട്ട അയച്ചിട്ട് അതിൻ്റെ അത് എത്ര പീസ് വേണം എന്ന് ഒരു നൂറോ അമ്പതോ പീസ് വേണമെങ്കിൽ അതിൻ്റെ താഴെ പീസ് ഇത്ര മതിയെന്ന് ഇട്ടാൽമതി അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഡെലിവറി ചെയ്തു തരും കസ്റ്റമൈസ് ആണ് അപ്പം നമ്മൾക്ക് വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞ ഇത് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യു നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ക്യാഷ് പേ ചെയ്താൽമതി കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ എന്നത്തേക്ക് വേണം എന്നു പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ എല്ലാ പുതിയ വെറൈറ്റീ മറ്റെ മുൾട്ടയാണെങ്കിൽ ഇതിനകത്ത് ഈ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ആ കോട്ടണിൻ്റെ വേറെയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഞാൻ സെൻ്റ് ചെയ്തു തരാം നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അത് അയച്ചു തന്നാൽമതി അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പിന്നെ കളക്ഷൻസ് എത്ര വേണം നിങ്ങൾക്ക് അപ്പോൾ എത്ര പീസ് വേണം എന്ന് നിങ്ങൾ പറഞ്ഞാൽമതി എത്ര ഷോൾ വീതം വച്ച് ഒരു ഷാൾ എത്ര പീസ് വേണം എന്ന് ഇപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ പീസ് വേണമെങ്കിൽ താഴെ ഇട്ടാൽമതി ആ ഓരോ കളറിൻ്റെേയും ഷാളിൻ്റേയും നമ്മൾ അതൊക്കെ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്തായാലും മാം ഒരു വാട്ട്സ്അപ്പ് ചെയ്തു തരാം കേട്ടോ ആ ഒക്കെ താങ്ക് യു